ഹലോ ആ ഇത് തിരുവനന്തപുരത്തെ സ്ഥലത്തിൻ്റെ ബ്രോക്കർ അല്ലെ ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ഇച്ചിരെ സ്ഥലം വേണമായിരുന്നു അവിടെ എങ്ങനെയാണ് സെൻ്റിനൊക്കെ പൈസ രൂപ

ഓ അ അ എനിക്ക് അത്രയൊന്നും വേണ്ട എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഒക്കെ അങ്ങനത്തെ കിട്ടുവാണെങ്കിൽ ഉം നാ ഇച്ചിരി ഒത്തിരി തീരെ അങ്ങ് ഇതായി പോകരുത് ഇച്ചിരെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ആ വേണം

ഉം എപ്പോഴത്തേന് മറുപടി പറയും അപ്പോൾ ആ അതെ അതെ അതെ അതെ വീട് വെക്കാനാണ് പക്ഷേ എല്ലാ സൗകര്യങ്ങളും വേണം വണ്ടി സൗകര്യവും പിന്നെ എന്തോ ഞങ്ങൾക്ക് ഒരു പത്ത് സെൻറ്റോളം വേണം

അത്രയും ഉം തീരെയങ്ങ് വില്ലേജ് ആയി പോകരുത് പക്ഷേ പള്ളിയോ സ്കൂളൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം നമുക്ക് ജോലിയൊക്കെ ആയിട്ടും വണ്ടി സർവീസുള്ള സ്ഥലമൊക്കെ നോക്കണം ഉം

ആ ഹ ഇച്ചിരി കൂടെ ഒന്ന് ഇച്ചിരി ഒക്കെ ഒന്നു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ എങ്ങനെയെങ്കിലും അത്രയ്ക്ക് തന്നെ ആ അതെ വീട് വെക്കാനായിട്ടാണ് അപ്പം വണ്ടി സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ ഹ അപ്പം വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വല്ല ബുദ്ധിമുട്ടു ഉണ്ടോ വെള്ളമൊക്കെയുള്ള സ്ഥലമാണോ ആണോ ആ അവിടെ എങ്ങനെ വെള്ളത്തിന് വല്ല ക്ഷാമം വല്ലതും ഉണ്ടോ ജപ്പാൻ കുടിവെള്ളത്തിന് ആ ഹ ആ പിന്നെ ഏരിയ എങ്ങനെയാണ് ആൾക്കാരൊക്കെ ഒത്തിരി താമസിക്കുന്നതാണോ അതെയോ

ഓക്കേ ഓക്കേ ആ അപ്പം അങ്ങനെത്തെ ഒരു നല്ല സ്ഥലം നോക്ക് അന്നേരം പിന്നെ അതനുസരിച്ച് ആ എങ്കിൽ ആ എത്രയും പെട്ടെന്ന് അറിയിക്കണം കേട്ടോ ആ ഓക്കെ ടാങ്ക് യൂ